ക്ഷേത്രങ്ങളുടെയും അതുപോലത്തെ മതപരമായ ചടങ്ങുകളെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുക ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ആളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ആത്മീയ പാരമ്പര്യം എന്ന് പറയുമ്പോൾ കൂടുതലായി പറയാനായിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിനെ പറ്റിയിട്ടാണ് ഗിരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇത്രയധികം പ്രസിദ്ധമായിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രമെന്ന് പറയുന്നത് അവിടെ പല തരത്തിലുള്ള ആത്മീയമായ ചടങ്ങുകളുണ്ട് ഗുരുവായൂർ ഉത്സവം പത്ത് ദിവസം നീണ്ട് നിൽക്കുന്ന ഗുരുവായൂർ ഉത്സവം വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ വടക്കുംനാഥക്ഷേത്രം തൃശൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്നത് തൃശ്ശൂർ പൂരമാണ് ഈ തൃശൂർ പൂരം നടക്കുന്നത് ഈ വടക്കുംനാഥൻ്റെ സന്നിധിയിലാണ് വടക്കുംനാഥൻ്റെ മുന്നിലുള്ള തേക്കിൻകാട് മൈതാനത്തിലാണ് ഇത്രയും വലിയ ലോകപ്രസിദ്ധി ആർജ്ജിച്ചിട്ടുള്ള ഈ തൃശൂർ പൂരം നടക്കുന്നത് ശക്തൻ തമ്പുരാനായിട്ട് കൊണ്ട് വന്നിട്ടുള്ളതാണ് ഈ തൃശൂർ പൂരം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടം തൊട്ടിട്ട് ഇന്നും അതേ ആവേശ പൂർവ്വമാണ് തൃശൂർക്കാർ തൃശൂർ പൂരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അത്രയും തരത്തിലുള്ള ഗജവീരൻമാരായിട്ടും അതുപോലെ തന്നെ എന്താണ് പറയുക കുടമാറ്റം പോലെയുള്ള വൈവിധ്യപൂർണമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടും പിന്നെ മേളം ചെണ്ടമേളം പോലെയും വെടിക്കെട്ട് പോലെയൊക്കെയുള്ള വളരെയധികം എന്താണ് പറയുക സന്തോഷം തരുന്ന നമുക്ക് മനസ്സിനൊരു സമാധാനം തരുന്ന തരത്തിലുള്ളൊരു പൂരമാണ് പൂരങ്ങളുടെ നാട് തന്നെയാണ് തൃശൂർ എന്ന് പറയുന്നത് പല തരത്തിലുള്ള പൂരം വേറെ നാട്ടിലുള്ളത് വേറെ കേരളത്തിൽ ഏത് ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റാത്ത അത്ര പൂരങ്ങളാണ് തൃശൂർ ജില്ലയിലുള്ളത് അപ്പോൾ തൃശൂർ ജില്ലയുടെ ഒരു ആത്മീയ പാരമ്പര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ തരത്തിലുള്ള അമ്പലങ്ങളിൽ പോവുമ്പോൾ തന്നെയാണ്